ഉസ്കൂളിൽ അദ്ധ്യാപകർ കുട്ടികൾക്ക് നല്ലൊരു മാതൃകയാവേണ്ടതാണ് അവർ കുട്ടികളോട് അദ്ധ്യാപകർ കുട്ടികൾക്കൊരു മാതൃകയാകേണ്ടതാണ് അവരെ കണ്ട് പഠിക്കാൻ വേണ്ടിയാണ് എല്ലാ കുട്ടികളും ശ്രമിക്കുന്നത് അവർ എപ്പോഴും നല്ല ശീലങ്ങൾ കുട്ടികൾക്ക് ഏറ്റവും ആദ്യം പഠിപ്പിച്ച് കൊടുക്കേണ്ടത് പഠനത്തിന് മറ്റ് പാഠ പഠ്യേതര വിഷയങ്ങളെക്കാളും അവർ നന്നായി പറഞ്ഞ് കൊടുക്കേണ്ടത് അവർ എങ്ങനെയാണോ പെരുമാറുന്നത് അതേക്കുറിച്ച് നല്ല ബഹുമാനത്തോടു കൂടിയിട്ട് അല്ലെങ്കിൽ നല്ല അനുസരണാശീലത്തോട് കൂടിയിട്ട് കുട്ടികളെ വളർത്തിയെടുക്കാനാണ് അദ്ധ്യാപകർ ശ്രമിക്കേണ്ടത് അതാണ് ഇപ്പോഴത്തെ കുട്ടികൾക്കാർക്കും ഇല്ലാതെ പോകുന്നതും ഒരു അനുസരണാശീലമാണ് അവർക്ക് അവരുടേതായ രീതിയിൽ പോവുകയാണ് ചെയ്യുന്നത് അധ്യാപകർ പറയുന്നത് അനുസരിക്കുന്നില്ല അവരൊരു നല്ലൊരു കുട്ടികൾ ആവുന്നില്ല സ്കൂളിൽ പാഠഭാഗങ്ങൾ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ ബിഹേവിയേഴ്സ് അതും കൂടി അദ്ധ്യാപകർ പഠിപ്പിക്കണം എന്ന് പഠിപ്പിക്കേണ്ടതാണ് അതുപോലെ തന്നെ പാഠവിഷയങ്ങളും നല്ല കൂളായി അതായത് നല്ല തമാശ രൂപേണ സ്ട്രിക്റ്റാക്കാതെ തമാശ രൂപേണ അത് പറഞ്ഞാൽ അങ്ങനെ പറ പഠിപ്പിക്കുവാണെങ്കിൽ തന്നെ കുട്ടികൾ പെട്ടെന്ന് പാഠങ്ങൾ പഠിച്ചെടുക്കാൻ ശ്രമിക്കും അവർ അത് ഉൾക്കൊണ്ട് കൊണ്ട് തന്നെ പഠിച്ച് പഠിച്ചെടുക്കും അത് ഒരു കളിയുടെ രൂപത്തിൽ ആയാൽ അത് അവർ പെട്ടന്ന് മനസ്സിലാക്കിയെടുക്കും കണക്ക് തന്നെ കണക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു വിഷയമാണ് കണക്ക് ആ കണക്ക് പല അദ്ധ്യാപകരെ ഒരു കളിയായിട്ടത് പഠിപ്പിച്ചു കൊടുക്കുന്നതും അല്ലെങ്കിൽ ഒരു ഓരോരോ താളത്തിൽ അത് പഠിപ്പിച്ചു കൊടുക്കുന്നു അപ്പോൾ കുട്ടികൾ പെട്ടന്ന് അത് ആഗ്രഹിക്കുന്നതായിട്ടും ഞാൻ വീഡിയോയിലും മറ്റും കണ്ടിട്ടുണ്ട് അതുപോലെയാണ് കുട്ടികൾ അതുപോലെ പെൺകുട്ടികൾ പെൺകുട്ടികൾ കുറച്ച് വലുതാകുമ്പോൾ അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ പെൺകുട്ടികളെന്നല്ല ആൺകുട്ടികൾക്കും അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് ശരീരഘടനയിലും മറ്റുമായിട്ട് സ്വഭാവത്തിലായാലും ശരീരഘടനയിലും ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് ഈ മാറ്റങ്ങൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഒരു അദ്ധ്യാപകർക്ക് വേണ്ടീട്ട് അല്ലങ്കിൽ അതിനായിട്ടൊരു കൗൺസിലർ കൗൺസിലർ ഉണ്ടെങ്കിലും ഒരു അത് പറഞ്ഞ് കൊടുത്ത് അവരെ മനസ്സിലാക്കിക്കാൻ ഒരു പെൺകുട്ടികൾക്കാകുമ്പോ ൾ ഇപ്പോൾ ഒരു പത്ത് പതിനൊന്ന് പതിനൊന്ന് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പിരിയഡ്സാണ് അപ്പോൾ ആ പീരിയഡ്സ് സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ എല്ലാ കുട്ടികൾക്കും അത് അറിഞ്ഞിരിക്കണമെന്നില്ല അപ്പോൾ അതിനായിട്ടുള്ളൊരു ഒരു ടീനേജിൽ കുട്ടികൾക്ക് അതിനായിട്ടുള്ളൊരു ബോധവൽക്കരണം ഒരു ടീച്ചേഴ്സിൻ്റെ ഭാഗത്ത് നിന്നായാലും ഉണ്ടായാൽ അത് അവരെ ഒരുപാട് ഗുണം ചെയ്യും അവരിൽ ഇതിനെക്കുറിച്ചിട്ട് ബാലപാഠം തന്നെ അവർ ടീച്ചേഴ്സിൽ നിന്ന് മനസ്സിലാക്കിയത് തന്നെ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും വീട്ടുകാരോട് പറയുന്നതിനെ കൂടുതൽ ഒരു നല്ലൊരു ടീച്ചറോട് അവർ ഉള്ള് തുറന്ന് സംസാരിക്കാനുള്ള ഒരു ഉള്ള് തുറന്നിട്ട് സംസാരിക്കാൻ അവർക്ക് കഴിയുന്നുണ്ടാവും അവർ നല്ലൊരു ഫ്രണ്ട്ലി ആയ ഒരു ടീച്ചറാണെങ്കിൽ അവർ നല്ലൊരു കൂട്ടുകാരിയെപ്പോലെ ആയിരിക്കും അതുകൊണ്ട് കൂറ്റ് കൂട്ടുകാരിയോട് പറയുന്നത് പോലെ തന്നെ ടീച്ചേഴ്സിനോട് പറയുകയും അവർ അത് പറഞ്ഞ് കൊടുക്കുമ്പോൾ ടീച്ചറ് അതിന് നല്ലൊരു മറുപടി കൊടുത്ത് കഴിഞ്ഞാ അവർക്കും ഒരുവിധം പ്രശ്നങ്ങളെല്ലാം ദൂരീകരിക്കാനാവും അവർക്കാ വരുന്ന ശരീരഘടനയിൽ വരുന്ന മാറ്റങ്ങൾ എന്നിട്ട് ബോധവൽക്കരണ ക്ലാസ് പോലെ സ്കൂളിൽ അദ്ധ്യാപകർ കുട്ടികൾക്ക് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ അവർ അത് നന്നായിട്ട് മനസ്സിലാക്കിക്കൊള്ളും അതുപോലെ തന്നെ സ്കൂളിൽ അല്ലങ്കിൽ ഉസ്ക്കൂളിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന പ്രയാസങ്ങൾ അതെല്ലാം അദ്ധ്യാപകർ കൂടി സ്കൂളിലെ കുട്ടികളോ സ്കൂളിൽ വന്ന് കുട്ടികളോട് ചോദിച്ച് മനസ്സിലാക്കണം എന്നും അതുപോലെ പാഠവിഷയങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ പോരെന്നും അവർ പഠിക്കേണ്ട രീതി അല്ലെങ്കിൽ അവർക്ക് പഠിക്കേണ്ട ടൈം ടേബിൾ അതുകൂടി അവർക്ക് ഉണ്ടാക്കിക്കൊടുത്ത് പിന്നെ പഠിക്കുന്ന കുട്ടികൾ മാത്രമല്ല പഠിക്കുന്നതിൽ കുറച്ച് പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ ശ്രദ്ധിക്കാനും ചില അദ്ധ്യാപകർ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രം കോൺസെൻട്രഷൻ അത് അവരെ മാത്രം നോക്കിക്കൊണ്ട് പഠിപ്പിക്കുകയും മറ്റുള്ളവരെ എല്ലാത്തിലും ചീത്ത പറയുകയും ചെയ്യുന്ന അതും അവർക്ക് ഒരുപാട് അവരെ അത് പിന്നെയും അവരെ മോശം രീതിയിലേക്ക് മാറ്റാനുള്ള ഒരു ഉപാധിയായിട്ട് മാറുന്നുണ്ട് അതുകൊണ്ട് പഠിക്കുന്നവരേയും എല്ലാവർക്കും ഒരുപോലെ കഴിവ് വേണമെന്നില്ല പഠിക്കുവാൻ ചിലർക്ക് പെട്ടന്ന് മനസ്സിലാക്കാൻ കഴിയും ചിലർക്ക് കൂറച്ച് താമസിച്ചാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ധ്യാപകർ എല്ലാവരെയും ഒരുപോലെ കണ്ട് പിന്ന് അത് പിന്നോട്ട് നിൽക്കുന്നവരെ കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കി എല്ലാ കുഞ്ഞുങ്ങളും ഒരേപോലെ പഠിക്കുന്ന കുട്ടികളായാലും പഠിക്കാൻ കുറച്ച് പ്രയാസമുള്ള കുട്ടികളായാലും എല്ലാവർക്കും ഒരുപോലെ പറഞ്ഞ് കൊടുത്ത് മുന്നോട്ട് കൊണ്ട് വരാൻ അവർ ശ്രമിക്കണം അപ്പം അവർക്ക് കിട്ടുന്നതും കൂടുതൽ മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞ് ആ കുട്ടികളെ മാത്രം ശ്രദ്ധിക്കുന്നത് ഒരിക്കലും നല്ലതല്ല എല്ലാ കുട്ടികളേയും നല്ല മാർക്ക് മേടിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ് വേണ്ടത് അതുപോലെത്തന്നെ സ്കൂളിൽനിന്ന് പോകുമ്പോഴും വരുമ്പോഴും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ബസ്സിലായാലും അല്ലെങ്കിൽ മറ്റ് പ്രൈവറ്റ് ബസ്സിലായാലും അവർക്ക് യാത്രാമധ്യേ ഒരുപാട് പ്രയാസങ്ങൾ ഇപ്പോൾ എല്ലാ കഴുകൻ കണ്ണുകളും അവിടെ നിന്ന് കുട്ടികളെ നോക്കുന്നുള്ളത് തട്ടികൊണ്ട് പോകൽ അല്ലെങ്കിൽ കുട്ടികളെ പീഡിപ്പിക്കുന്നത് അങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പോഴത്തെ കുട്ടികൾ അനുഭവിക്കുന്നുണ്ട് അതിനൊക്കെ അതൊക്കെ തുറന്ന് പറയാനുള്ള ഒരു മാനസികാവസ്ഥ അവർ ക്ലാസ്സെടുത്ത് കൊടുത്ത് അവർക്ക് ഒരു ബോധവൽക്കരണ ക്ലാസ് ബോധവൽക്കരണ ക്ലാസ് എടുത്ത് കൊടുത്ത് കൊടുത്ത് തന്നെ അവർ അറിയാനുള്ള ഒരു മനസ്ഥിതിയിലേക്ക് എത്തിക്കണം എന്ത് ബുദ്ധിമുട്ട് ഉണ്ടെങ്കിലും ഒരു നല്ലൊരു അദ്ധ്യാപകനോട് പറയാനുള്ളൊരു കഴിവ് അവർക്കും വളർത്തിയെടുക്കണം എന്നാൽ മാത്രമേ ഇപ്പോഴത്തെ ഈ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരുപാട് അനീതികളുണ്ട് അതിലവർ തുറന്ന് പറയാൻ ചില കുട്ടികൾക്ക് പേടിയാണ് അത് പറഞ്ഞാൽ എന്ത് ചെയ്യും അദ്ധ്യാപകർ എന്ത് ചെയ്യും അതുകൊണ്ട് തന്നെ ചില കുട്ടികൾ അതവർ പറഞ്ഞ് കൊടുക്കാൻ അതെ കൊച്ചുകുട്ടികൾ ടീച്ചേഴ്സോട് പറയാൻ ഭയങ്കര മടി കാണിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും പാടില്ല എന്തും നമ്മളോട് തുറന്ന് പറയാം എന്ന് അവർ മനസ്സിലാക്കുന്ന വിധത്തിൽ അത് തുറന്ന് പറഞ്ഞാലവരെ നമ്മൾ ഒരുപാട് സഹായിക്കുമെന്ന തോന്നൽ കുട്ടികളിൽ കുട്ടികളെ വർത്തിയെടുക്കുന്ന രീതിയിൽ വരെ ക്ലാസ്സുകളെടുത്ത് കൊടുത്താൽ അവർക്ക് ഒരുപാട് പ്രയോജനം ചെയ്യും അതുപോലെ തന്നെ കുട്ടികൾ സ്പോർട്സിനായാലും മറ്റ് കലാകായികത്തിനായാലും അവരെ പ്രോത്സാഹിപ്പിക്കണം അത് കുട്ടികളുടെ പിന്നേക്കുള്ള ഒരു ഭാവിയിക്ക് തന്നെ നല്ലൊരു ഉപാധിയായിട്ട് മാറാൻ പറ്റുന്നുണ്ട് ചില കുട്ടികൾക്ക് കായിക കായിക ആഭ്യാസങ്ങളായിരിക്കും കൂടുതൽ താൽപ്പര്യം അവര് അതിനായിട്ട് അവർക്ക് അതിനുള്ള കഴിവുണ്ടങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കണം പിന്നെ ചിലർക്ക് കലാരംഗത്ത് അവർക്ക് ഡാൻസായാലും പാട്ടിനോടായാലും അതിനോട് നല്ല താൽപ്പര്യം ഉണ്ടാവും ചില കുട്ടികൾക്ക് ചില വാസനയുണ്ട് അത് മനസ്സിലാക്കാൻ മനസ്സിലാക്കി അവരെ ആ അതിൻ്റെ അതിൻ്റെ വഴിയിലേക്കുതന്നെ കൊണ്ട് പോകാൻ എല്ലാവരും എല്ലാ അദ്ധ്യാപകരും ശ്രമിച്ചാൽ കുറേ നല്ല കലാകാരന്മാരും കലാകാരികളേയും നമുക്ക് സ്കൂളിൽ വളർത്തിയെടുക്കാൻ സാധിക്കും അതേപോലെ തന്നെ നല്ല സ്പോർട്സിൽ സ്പോർട്സിലായാലും നല്ലൊരു സ്കൂളിൽ നല്ല ഒരു സ്പോർട്സിനും മറ്റടത്ത് പോകാണ്ട് സ്കൂളിലേക്കൊരു നല്ലൊരു ഭാവീന് സ്കൂളിൻ്റെ പേര് പറയാൻ അല്ലെങ്കിൽ സ്കൂളിലെ കുട്ടികൾക്കുള്ളൊരു ഭാവിക്ക് വേണ്ടി അത് നല്ല വണ്ണം പ്രയോജനപ്പെടുത്താൻ കഴിയും എന്ത് കാര്യവും കുട്ടികൾക്ക് വരുന്ന എന്ത് പ്രയാസങ്ങളും അത് എന്തുമായിക്കോട്ടെ നല്ലതായാലും ചീത്തയായാലും അത് അദ്ധ്യാപകരോട് തുറന്ന് പറയാനുള്ള ഒരു മനസ്സ് അവർക്ക് ഉണ്ടാക്കി വളർത്തിയെടുക്കാൻ വേണ്ടി എല്ലാ അദ്ധ്യാപകരും ശ്രമിക്കണം ശ്രമിക്കണം